നിങ്ങൾക്ക് ഇഷ്ടപെട്ട ഭക്ഷണം ഏതാണ് അതുണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാമോ ആ എനിക്ക് ഇഷ്ടപെട്ട ഭക്ഷണം എന്ന് പറയുന്നത് നെയ്ച്ചോറും ബീഫും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട ഭക്ഷണം അത് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണെങ്കിൽ അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ അരിയുടെ തിരഞ്ഞെടുപ്പാണ് ഇപ്പം നമുക്ക് വിപണിയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല നെയ്ച്ചോറ് വയ്ക്കുന്നതിനുള്ള അരിയെന്ന് പറഞ്ഞത് കൈമ അരിയാണ് അപ്പം അത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കിലോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ കൊണ്ടുവന്ന് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർക്കണം അപ്പം തന്നെ അരി വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ഇത്രയും സവാ ഒരു ഒരു അര കിലോ സവാള പിന്നെ നമ്മളെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് നമുക്ക്

അതിന് ശേഷം നമ്മൾ പിന്നെ നല്ലൊരു പരന്ന പാത്രത്തിൽ ചുവട് നല്ല പരന്നൊരു പാത്രം അത് അടുപ്പത്ത് വെച്ച് അതിനകത്ത് ആവശ്യമായ ഒരു ഒരു കിലോ അരിക്ക് ഒരു നൂറ്റമ്പത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്തും ചേർക്കാം അങ്ങനെ ഡാൽഡയോ ഉള്ളത് ചേർക്കാം അത് അടുപ്പത്ത് വെച്ച് നല്ല ചൂടാകുമ്പോൾ അതിനകത്ത് പാകത്തിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന സ എന്ന നിലയിൽ ഇപ്പം ആറ് ഗ്ലാസ് അരിയാണ് ഒരു കിലോ അപ്പോൾ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അതിനകത്ത് വയ്ക്കുക ആ വെള്ളം ഒക്കെ തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് മസാലക്കൂട്ട് ഇപ്പം ജീരകം അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ചോറ് ഒട്ടിപിടിക്കാതെ ഇരിക്കാൻ നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ ഒരു പീസ് പിഴിഞ്ഞതിൻ്റെ നീരൊഴിച്ച് ഇങ്ങനെയൊക്കെ ശ്ശി ഉപ്പൊക്കെ പാകത്തിന് ഉപ്പ് ഇട്ട് കറിവേപ്പില ഒക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു അഞ്ചാറ് പച്ചമുളകും ഒക്കെ ഇട്ട് അത് വെള്ളത്തിൽ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിരാൻ വെച്ച അരിയെടുത്ത് അതിനകത്ത് ഇട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ അത് വേവിക്കുക ശേഷമായിട്ട് ഒരു അര മണിക്കൂർ അടച്ചുവെച്ച് അടച്ചു വയ്ക്കുന്നതിന് മുമ്പ് ഇത്തിരി ഒരു നൂറ് ഗ്രാം നെയ്യ് അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് അതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് അര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് പാകത്തിന് കഴിക്കാൻ പാകത്തിന് ആകുകയും അതൊരു ചെറുചൂടോടെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഈ നെയ്ച്ചോറ് നമുക്ക് ഇപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിധം ഓക്കെ